തീർച്ചയായും ബോളിവുഡ് ടോളിവുഡ് അങ്ങനെ ഇന്ത്യയിലെ എല്ലായിടങ്ങളിലെയും ഫാഷൻ ട്രെൻഡുകളെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം ഞാൻ കൂടുതലായിട്ടും എനിക്ക് ഫാഷൻ ഡിസൈനോട് ഒരുപാട് താല്പര്യം ഉണ്ട് അപ്പം ഞാൻ കൂടുതലായിട്ടും ട്രെൻഡുകളെ ഫാഷൻ ട്രെൻഡുകളെ നോക്കാറുണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ നോക്കി കാണാറുണ്ട് അതുകൊണ്ടു തന്നെ ബോളിവുഡ് ടോളിവുഡ് ഈ മേഖലയിലെ എല്ലാ ഫാഷൻ ട്രെൻഡുകളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ അത് ഇപ്പം ഞാൻ ഒര് ഒരു ഒരു പ്രമുഖ നടി അല്ലെങ്കിൽ പ്രമുഖ നടൻ ഏതെങ്കിലും ഒര് ഡ്രസ് ധരിച്ച് ഏതെങ്കിലും ഫംഗ്ഷന് എന്തെങ്കിലും വരുന്ന വീഡിയോ ഞാൻ കാണുണന്നെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്നത് അവരുടെ ഡ്രസ് ആണ് അത് എത്രത്തോളം അവർക്ക് മേച്ച് ചെയ്യുന്നുണ്ട് ആ ഡ്രസ്സിനെ എങ്ങനെ ആയിരിക്കും അവർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അങ്ങനെ നോക്കാറുണ്ട് ഇപ്പോൾ ഒരു നടി ധരിക്കുന്ന ഒരു വേഷം ഞാൻ അത് നോക്കിയിട്ട് അതിനെ ചെറുതായിട്ട് ഞാൻ ഒന്ന് വരച്ചു മോഡൽ ആക്കി ഒന്ന് വരച്ചു നോക്കിയിട്ട് ഒര് ചെറിയ പീസ് ഓഫ് ഒരു പീസ് തുണിയിൽ ഞാൻ അത് നോക്കാറുണ്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് എന്നിട്ട് ഞാൻ അതുപോലെ തയ്ച്ചും നോക്കാറുണ്ട് ഒരു ചെറിയ ഒരു ഒരു പാവയ്ക്ക് തയ്ക്കുന്നത് പോലെ ഞാൻ അത് തയ്ച്ചു നോക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ ശരിയാവാറുണ്ടത് കറക്റ്റ് അതേപോലെ തന്നെ കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ ചില ചിലയിടത്തൊക്കെ തയ്ക്കുമ്പോൾ കുറച്ച് എന്താണ് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അത് എനിക്ക് ഇല്ലാതെ വരുമ്പോൾ ഞാനത് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടെത്താറാണ് ഉള്ളത് പിന്നെ സിനിമയിലെ സമാനമായ വസ്ത്രങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട് സാൾട്ട് ആൻഡ് പെപ്പർ എന്നു പറയുന്ന മൂവി ഇറങ്ങിയ സമയത്ത് അതിലൊരു പാട്ടിൽ അതിലെ നടി ഇട്ടിരിക്കുന്ന ഒരു പാവാട ഉണ്ട് ആ പാവാട നല്ല ഫ്ലെയർ വന്നിട്ടുള്ള പാവാടയാണ് അപ്പോൾ അത് ഒന്നു പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഞാൻ പക്ഷേ അത് കിട്ടിയിട്ടില്ല അത് ഓക്കെ ആയി വന്നിട്ടില്ല ഫ്ലോപ്പ് ആയി പോകുക ആണ് ഉണ്ടായത്